ഹലോ പറഞ്ഞോളു ആരാണ് അതെ ആ അവിടെ ബിരിയാണി ഉണ്ട് കപ്പ ഉണ്ട് ചോറുണ്ട് ആ ഇതുണ്ട് പൊറോട്ട ഉണ്ട് ചിക്കൻ കറി ഉണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് ചോറും കറികളുമുണ്ട് ചോറിന് തോരനുണ്ട് അവിയലുണ്ട് മോരുണ്ട് സാമ്പാറുണ്ട് പരിപ്പുചാറുണ്ട് പിന്നെ മീന് സ്പെഷ്യല് വേണമെന്നുണ്ടെങ്കിൽ മീൻ ഫ്രൈ ഇതിൻ്റെ ചാർജ് എന്നാത്തിൻ്റെ ചാർജാണ് ബിരിയാണിക്കാണെന്നുണ്ടെങ്കിൽ നൂറ്റമ്പത് ഊണാണെന്നുണ്ടെങ്കില് നൂ ഫ്രൈ ഉൾപ്പടെ ആണെന്നുണ്ടങ്കിൽ നൂറ്ററുപത്

കപ്പയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ നൂറ്റമ്പത് ഫ്രെയ്ഡ് റൈസ് ഇരുന്നൂറ് പത്തുപേർക്ക് മ്മ് നിങ്ങളിങ്ങോട്ട് വരുവോ അതോ ഞങ്ങളങ്ങോട്ട് കൊടുത്തുവിടണോ എ എങ്ങനെയാണ് മ്മ് ഇങ്ങോട്ട് വരും നിങ്ങൾക്ക് ബിരിയാണി മതി ഓക്കേ എത്ര എത്ര ബിരിയാണി ആണ് പത്ത് ബിരിയാണി പത്ത് മട്ടൻ ബിരിയാണി ഓക്കേ മ്മ് മ്മ് ഐസ് ക്രീമും വേറെ വല്ലതും വേണോ സ്പെഷ്യലായിട്ട് ജൂസ് ജൂസ് ഓക്കേ പൈനാപ്പിൾ വേണോ അതോ ഇനി പിന്നെ ലെമൺ ജൂസുണ്ട് പൈനാപ്പിളുണ്ട് ഫ്രഷ് ജൂസ് ഫ്രഷ് ജൂസ് ഓക്കേ ആപ്പിള് ആപ്പിള് ഓക്കേ ഓക്കേ ഓക്കേ ഓക്കേ ആ പത്ത് ബിരിയാണി അല്ലേ പത്ത് മട്ടൻ ബിരിയാണി മ്മ് അപ്പോൾ പത്ത് മട്ടൻ ബിരിയാണി ഓക്കേ മ്മ് ഫ്രഷ് ജൂസ് ആ ഐസ് ക്രീമ് ഓക്കേ ഓക്കേ ആ ഇത്രയും റെഡിയാക്കി വെച്ചേക്കാം ആ നിങ്ങളെത്ര മണി ആകുമ്പം വരും നമ്മള് ഫുഡ് പന്ത്രണ്ടര മുതല് ഓപ്പണിങ് ഒരു മണിയാകുമ്പം ഓക്കേ പോര് ശരി എന്നാൽ ഓക്കേ ഓക്കേ താങ്ക്യൂ